നമ്മുടെ ഗ്രാമത്തിലെ വിവാഹം വിവാഹങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് വെച്ചിട്ടുണ്ടങ്കില് അത് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് ഇങ്ങനെ അതായത് അറേഞ്ച്ഡ് മേരേജിൻ്റെ കാര്യം ആണ് ഞാൻ പറയുന്നത് അപ്പം അറേഞ്ച്ഡ് മേരേജിൻ്റെ കാര്യം പറയുകയാണെങ്കില് നമ്മള് ആദ്യം ഒരു ചെക്കനും പെണ്ണും കൂടി അതായത് ബ്രോക്കറ് ബ്രോക്കറ് വഴി നമ്മള് നോക്കും അതായത് നമ്മള് ബ്രോക്കറ് ആണ് നമ്മളെ ആദ്യം ചെക്കൻ്റെ വീട്ടിൽ ആണേൽ പെണ്ണിൻ്റെ വീട്ടിൽ ആണേൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ചെക്കൻ്റെ ജോലി എന്താ എന്ന് പറയും പിന്നെ പെണ്ണ് എന്താ ചെയ്യുന്നത് എന്ന് പറയും അ പെണ്ണ് എന്താ ചെയ്യുന്നത് പറയും അപ്പോൾ അത് ഒക്കെ നോക്കും അങ്ങനെ നോക്കിയിട്ട് അതായത് വീട്ടുകാര് അതായത് അറേഞ്ചിഡ് മേരേജ് ആണ് അല്ലോ അപ്പോൾ വീട്ടുകാര് എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടങ്കില് ചെക്കനോട് അതായത് ഇഷ്ടപ്പെടുവാണെങ്കില് അതായത് ഫോട്ടോ കണ്ടിട്ട് അവരുടെ ബാഗ്രൗണ്ട് കാര്യങ്ങളും കേട്ടിട്ട് ഇഷ്ട്ടപ്പെടുവാണെങ്കില് നമ്മള് വീട്ടില് വന്ന് നോക്കാൻ പറയും അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാര് പെണ്ണിൻ്റെ വീട്ടില് വന്ന് ആദ്യം ആണ് പെണ്ണു കാണൽ ചടങ്ങ് അത് കഴിഞ്ഞ് അവര് ഇഷ്ട്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നിച്ഛയം അങ്ങനത്തെ കാര്യങ്ങൾക്ക് കടക്കും നിച്ഛയം കഴിഞ്ഞ ഉടനെ നിച്ഛയത്തിന് നമ്മള് ഒരു ഡേറ്റ് തീരുമാനിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം ഡേറ്റ് അതായത് കല്യാണം അടുത്ത് കല്യാണ ഡേറ്റ് തിരുമാനിച്ച് പിന്നെ നമ്മള് കല്യാണത്തിന് താലികെട്ടി ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ട് പോകും